കുട്ടിക്കാലം തൊട്ട് അച്ഛൻ്റെ കൂടെ ഞാൻ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ മത്സ്യ ബന്ധനത്തിന് പോകുന്ന ഒരാളാണ് അപ്പം അച്ഛൻ്റെ കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോളിങ്ങനെ അച്ഛനോട് ഞാൻ ഒരു ആഗ്രഹമങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അച്ഛൻ ഭയങ്കര ഇതായി അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ പോരെ ഒരുദിവസം എന്നെ കൊണ്ടു പോയി അപ്പോൾ ഞാൻ വലിയ ശല്യപ്പെടുത്തലൊന്നും ഉണ്ടായില്ല ഞാൻ അച്ഛനെ ശല്യപ്പെടുത്താനൊന്നും പോയിട്ടില്ല അതുകൊണ്ടു തന്നെ അച്ഛൻ എന്നെ സ്ഥിരം കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടാണ് ഞാനും ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് അച്ഛൻ ചെയ്യുന്ന കാര്യം കണ്ട് കണ്ട് ഞാനും ഏകദേശം കുറച്ചൊക്കെ പഠിച്ചു അതുപോലെതന്നെ വീട്ടിൽ വരുമ്പോൾ അമ്മയുണ്ടാകും നമുക്കിപ്പോൾ പോയി കഴിയുമ്പോൾ അമ്മയെ കാണണം അച്ഛനെ അമ്മയെ കാണണം ചേച്ചിയെ കാണണം അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹമുണ്ടാകും അപ്പോൾ നമ്മൾ പോയിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഓ എന്താ വീട്ടിലെത്താത്തത് എന്താ വീട്ടിലെത്താത്തത് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാകും വീട്ടിൽവന്ന് അമ്മയെയും അച്ഛനെയൊക്കെ അമ്മയും ചേച്ചിയും ഒക്കെ കാണും അതുപോലെതന്നെ അച്ഛൻറെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് ആണ് അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം മത്സ്യ ബന്ധനത്തിന് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെയായിരിക്കും ഞാൻ എപ്പോഴും അച്ഛൻ എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് കുട്ടിക്കാലം മുതലേ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ് പോകാറ് അച്ഛൻറെ കുറെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടാകും വീടിനടുത്തുള്ള കുറെ ചേട്ടന്മാരും പിന്നെ അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടാകാറുണ്ട്